നമുക്കറിയാം ഒരുപാട് എക്സിബിഷൻസ് നമ്മുടെ ഇവിടെ നടന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് എക്സ്പോകള് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരു പലവിധം വെറൈറ്റി വെറൈറ്റി എക്സ്പോകളാണ് ന നമുക്കിടയിൽ നടന്ന് കൊണ്ടിരിക്കുന്നത് കിഡ്സ് ഫെസ്റ്റിൻ്റെക്കെ എക്സ്പോ നോക്കാണെങ്കിൽ അവരതിലേക്ക് നയിക്കും വിധം ഓരോ കലകൾ വരച്ചിരുന്ന് അവിടെ കൊണ്ട് വന്ന് വെക്കും അവരെ മതി മറന്ന് അവരതിലെക്ക് നോക്കി പോകും ആ മക്കൾ കുഞ്ഞുമക്കൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ വന്നാൽ ആ കാര്യത്തിലന്നെ ശ്രദ്ധ പോയി കൊണ്ടിരിക്കുന്നത് അവരൊരു കാര്യം നോക്കിയാൽ തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപെട്ട ടോം ആൻഡ് ജെറി സ്പൈഡർ മാന് അങ്ങനെയുള്ള ഓരോ കാർട്ടൂൺ ചിത്രങ്ങൾ അവരുടേതായിട്ടുള്ള കളിക്കോപ്പുകളൊക്കെ അങ്ങനെ വരകൾ മരങ്ങൾ പഴത്തിൻറ്റത് അങ്ങനെക്കെ ഓരോ ആർട്ട്കൾ നടത്തിയിട്ട് ഞാൻ അവരെ അതിലേക്ക് നയിച്ചും കൊണ്ടരിക്കും നമ്മളുടെ കുഞ്ഞു മക്കൾ അവിടുന്ന് പോരാത്ത വിധം അവർ അവിടെതന്നെ നിന്ന് നിന്നത് കണ്ടും കൊണ്ടേ ഇരിക്കും ഒരുപാട് സമയം അവർ അതിക്കുള്ളിൽ ചിലവഴിക്കും നമ്മുടെ മക്കൾക്കിടയിൽ തന്നെ ചെറിയ മക്കൾ തന്നെ ഈ കയ്യില്ലാത്ത മക്കൾ കാല് കൊണ്ട് വരച്ച് ഇതിനു വരുമാനം കണ്ടെത്തുന്നവർ വരെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അതിന് ശ്രമിക്കുന്നുണ്ട് ഞാൻ വലിയ ആളുകളും ചെറിയ ആളുകളുമൊക്കെ ഈ കലകളെ സ്നേഹിക്കുന്നവരുണ്ട് ഈ ആർട്ട് ആർട്ടെന്ന് പറഞ്ഞാൽ അത്രക്കും സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നവരുണ്ട് വേറൊരു ആർട്ടാണ് കൊണ്ട് നടക്കുന്ന ആർട്ടാണ് കോയിൻസ് കോയിൻസ് തന്നെ ഓരോ വർഷത്തിനും ഓരോ രാജ്യത്തും ഓരോ കോയിൻസ്കളുണ്ട് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല നമ്മുക്ക് പുറത്തുള്ള രാജ്യത്തിൻറ്റെം കൂടിം കാണുമ്പോൾ അത് അറിവ് കൂടാണ് നമുക്ക് ഇന്ന കോയിൻസ് ഉണ്ടായിരുന്നു ആ ഇന്ന് ആ രാജ്യത്തിന് ഇന്ന കോയിൻസാണ് ഈ രാജ്യത്തിന് ഇന്ന കോയിൻസുണ്ടായിരുന്നു ഈ വർഷങ്ങളിലാണിത് ഉണ്ടായിരുന്നത് ഞാൻ ഒരു പ്രാവശ്യം അതേ മാതിരി എക്സ്പോ സന്ദർശിക്കാൻ പോയപ്പം അവിടെയുള്ളൊരു കുട്ടി ആ കലകളെ ആ കോയിൻസ്കളെ ഒരു കലാരൂപമാക്കി കൊണ്ട് അടിക്കി അടിക്കി വെച്ചിരിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഓരോ വർഷത്തെ കോയിൻസ് ഓരോ അടിക്കിൽ വെച്ചിട്ട് നല്ല ഭംഗിയായി താഴേക്ക് താഴേക്ക് വെച്ചിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ല കൗതുകമായി കണ്ടു ഞാനത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെറ്റേക്കാലും മറ്റ് രാജ്യത്തെയും കോയിൻസ്കൾ കള കളക്റ്റ് ചെയ്തെങ്ങാണ്ട് ഒരുപാട് കോയിൻസ്കൾ ആ കുട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട് അതു കണ്ട് വന്നിട്ട് ഞാനും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കോയിൻസിൻ്റെ ശേഖരമുണ്ടാക്കി ഒരുപാട് കോയിൻസ്കൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തുന്ന സാർമാരുടെ അടുത്തുന്നും ഒക്കെ ഒരുപാട് കോയിൻസ്കൾ ശേഖരിച്ച് ഞാൻ നല്ലൊരു ബുക്കാക്കി വലിയൊരു ബുക്കാക്കി അത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിടയിൽ നടക്കുന്നപ്പോൾ കണ്ട് കൊണ്ടപ്പം നടക്കുന്ന പുതിയ എക്സിബിഷനുകളാണ് ഫുഡ് എക്സിബിഷന് എല്ലാവരും മതി മറന്ന് ആഘോഷിക്കണതാണത് ആ പലതരം ഫുഡ്കള് വെറൈറ്റി പലഹാരങ്ങളായിട്ടും സദ്യക്കുള്ളതായിട്ടും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ട് വന്ന് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നവരുണ്ട് നല്ല കൗതുകമാണ് വെറൈറ്റി വെറൈറ്റി സ്വാദ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം മധുരമുള്ളതും പുളിയിള്ളതും എരിവുള്ളത് അങ്ങനെ ഒരുപാടുണ്ടാകും എക്സ്ബിഷൻൽ നമുക്ക് തന്നെ അതൊന്ന് രുചിച്ച് നോക്കിയാൽ ആ ഇത് ഇന്ന് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കാം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം എനിക്കും വേണമല്ലോ ഇതൊക്കൊന്നുണ്ടാക്കി നോക്കാന്ന് വരെ നമ്മൾ ചിന്തിച്ച് പോകും അങ്ങനെ ഒരുപാട് എക്സ്ബിഷൻസ് പിന്നെയാണ് ഇന്നുള്ള എക്സ്പൊയാണ് നമുക്ക് കാണാം ഈ പുഴകൾ അരുവികൾ പിന്നെ മരങ്ങൾ ആ പുഴയുടെ അടുത്തിരിക്കണ മരത്തിൽ കിളികൾ വന്നിരിക്കും പഴങ്ങൾ തിന്നാൻ കിളികൾ വരും അങ്ങനത്തെ ആർട്ട്കൾ കുറെ കാണാം നമുക്ക് ഇപ്പോൾ കലാകാരന്മാർ കാണാൻ നം വരച്ച് ഒരു കഥയുണ്ടാവും അവരുടെ മനസ്സിൽ ആ കഥ വരച്ചിട്ട് അവർ ആ കഥ ആ കാർട്ടൂൺ രൂപത്തിലാക്കി ഓരോ പേപ്പറിലും ഇന്നിന്ന സീനാണെന്നും പറഞ്ഞ് കാ കാണിച്ച് തരും വരച്ചിട്ട് കാണിച്ച് തരും നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം ഇത് ഇ ഇന്നതാണ് ഈ കുട്ടിയവിടെ ഇന്ന ചെയ്യാണ് അങ്ങനെ ഒരു ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ നാലാം ക്ലാസ് പഠിക്കണ കുട്ടികൾക്ക് തന്നെ കാണിച്ച് കൊടുക്കണ കാണാം ഒരു ബുക്കിൽ ഒരു ചിത്രം വെള്ളമില്ലാത്ത സ്ഥലം അതിൽ ഒരു കുപ്പിയിൽ ഒരിത്തിരി വെള്ളമേ ഉണ്ടാവുള്ളു അടുത്ത ചിത്രത്തിൽ ഒരു കാക്ക അവിടെ വന്ന് നോക്കണതാണ് പിന്നത്തെ ചിത്രത്തിൽ ആ കാക്ക ആ കുപ്പിയിൽ കല്ല് കൊണ്ട് വന്ന് ഇടുകാണ് അങ്ങനെ വെള്ളം പൊന്തി വരാണ് കാക്ക ചിന്തിക്കാണ് എന്ത് ചെയ്യും എങ്ങിനെ ഇതിനെ മറി കടക്കും ഒരു തുള്ളി വെള്ളം ദാഹിക്കണതിന് കിട്ടണല്ലോ അപ്പോൾ അടുത്ത പേജിൽ ഈ കാക്കക്ക് ദാഹമകറ്റാനും വെള്ളം കിട്ടണതിനും ആ കാക്ക സന്തോഷത്തോടു കൂടി പറന്ന് പോകണത് അടുത്ത ചിത്രം അങ്ങനെ ചിത്രത്തിൽ ഒരു കഥ തന്നെ ഒരു ചിത്ര രൂപത്തിലാക്കി ഓരോ ചിത്രത്തിലും ഇന്ന ഇന്ന ഉള്ളടക്കം ഉണ്ട് എന്ന് കാട്ടിത്തരവരെ ചെയ്യും അപ്പോൾ കലകൾ ആർട്ട് എക്സിബിഷൻസ് ഇങ്ങനെ ഒരുപാട് എക്സിബിഷൻസ്കളുണ്ട് ഫുഡായാലും കിഡ്സയാലും എന്തിനുള്ളതായാലും അതിനൊക്കെ ഓരോ ഗുണപാഠങ്ങളും ഉണ്ടാകും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ചുറ്റും ഓരോ എക്സിബിഷൻസ് സംഘടിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും എക്സിബിഷൻസ് പോയി കണ്ട് കാണാറുണ്ട്